ഹലോ ഗ്യാസേജൻസിയല്ലേ കഴിഞ്ഞ ദിവസം നിങ്ങള് ഞാൻ ഗ്യാസോഡറെയ്തിരുന്നു എല്ലാ പ്രാവശ്യത്തേക്കാളും മനോഹരമായിരുന്നു ഇത്തവണത്തെ ഗ് ഗ്യാസ് നിങ്ങള് കൊണ്ടുത്തന്നതെക്കെ അത് ഇത്തവണ ഇത്തിരി ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധ് എല്ലാ പ്രാവശ്യവും നിങ്ങൾ രണ്ടുമൂന്ന് പ്രാവശ്യം വിളിച്ചാലൊക്കെയായിരുന്നു കൊണ്ടുത്തരുന്നത് പക്ഷേ ഇപ്രാവശ്യം അതൊരു നന്നായിട്ട് നിങ്ങള്ക്ക് ചെയ്യാൻ സാധിച്ചു കെട്ടോ ഞാനാദ്യമായിട്ട് നിങ്ങളെ കൺഗ്രാജുലേറ്റെയ്യുന്നു അതുപോലെ വന്ന ആൾക്കാര് ആ ഡെലിവറി ചെയ്ത ആൾക്കാര് ഒത്തിരി ഫ്രണ്ട്ലിയായിട്ടൊക്കെയായിരുന്നു ഞങ്ങളോട് ഇടപെട്ടെ അതെടുത്തുകൊണ്ട് വന്ന് ഞങ്ങളുടെ വീട്ടിൽ വച്ചുതരികയും അതുപോലെ അത് കണക്റ്റെയെം ഒക്കെ ചെയ്തു തന്നു കേട്ടോ അപ്പോള് അതിനുള്ള സന്തോഷം ഒത്തിരി സ്നേഹത്തോടെ പങ്കിടുന്നു